ചെറിയ വ്യവസായങ്ങൾ തുടങ്ങാനും കർഷകർക്കും സ്ത്രീകൾക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ബാങ്ക് ഉൾപ്പെടെ ഗവൺമെൻ്റ് പുതിയ പുതിയ പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബാങ്കുകൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട് അതുവഴി കർഷകർക്കും സ്ത്രീകൾക്കും ചെറുകിട സംരംങ്ങൾ തുടങ്ങാനും എളുപ്പത്തിൽ പണം അവർക്ക് ബിസിനസ്സിൽ ചിലവാക്കാനും സാധിക്കുന്നതാണ് അതുവഴി വലിയ തോതിൽ കടമില്ലാതെയും റിസ്ക്ക് കുറച്ചുകൊണ്ട് അവർക്ക് അവരുടെ ബിസ്നസ്സ് കൊണ്ടുപോകാൻ സാധിക്കും സ്ത്രീകൾക്കും കർഷകർക്കുമെല്ലാം സബ്സിഡിയിനത്തിൽ അവർ പൈസ എളുപ്പത്തിൽ അവരുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവെക്കാവുന്നതാണ് ഇതുവഴി സമൂഹത്തിൻ്റെ ഉന്നമനവും കുടുംബത്തിലെ ഓരോത്തർക്കും വരുമാനമാർഗ്ഗവും ഇതുവഴി എല്ലാവർക്കും സ്വന്തം വരുമാനത്തിൽ ജീവിക്കാനുമാണ് ഇങ്ങനെയുള്ള ഓരോ പരിപാടികൾ സർക്കാരും ബാങ്കും ഒത്തുചേർന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർഷകർക്ക് വിത്തുകൾ വാങ്ങാനും നിലം വയലുകൾ പാട്ടത്തിനെടുക്കാനും എല്ലാം സബ്സിഡിയിനത്തിൽ ഗവൺമെൻ്റും ബാങ്കും ഒത്തുചേർന്ന് വായ്പകൾ കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക് സംരംഭം തുടങ്ങാനും അമ്പത് ശതമാനത്തോളം പലിശ കുറച്ചുകൊണ്ടും ഇത് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ പൈസ ഗവൺമെൻ്റും ബാങ്കും ഒത്തുചേർന്ന് കൊടുക്കുന്നുണ്ട്